നമുക്കറിയാം നമ്മുടെ സാങ്കേതികവിദ്യയുടെ മാറ്റം നമ്മളെ ഏറെ സഹായിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് സാങ്കേതികവിദ്യയിലെ മാറ്റം ഉപകാരപ്രദമാണ് ഇപ്പോൾ നമ്മളൊരു യാത്ര പോവുവാണെങ്കില് ടിക്കറ്റ് ബുക്ക് ചെയ്യാന് വേണ്ടിയിട്ട് ആദ്യം ഒക്കെ നമ്മൾ ടിക്കറ്റ് അവിടെ പോയി സീറ്റ് ഉണ്ടോ എ എത്ര ആവും എത്ര സമയമാണ് എത്ര സമയത്താണ് കിട്ടുക ഏത് സീറ്റ് ആണ് എങ്ങനെ ഉള്ളതാണ് എവിടെയണ് ഒക്കെ നോക്കി അവിടെ പോയി നമ്മൾ അന്വേഷിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ചു പോന്ന് പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ അങ്ങോട്ട് വീണ്ടും ചെല്ലണം ഇപ്പോൾ ഈ സാങ്കേതികവി വിദ്യയുടെ മാറ്റം വന്നതോട് കൂടി നമ്മൾ ടിക്കറ്റ് ഓണ്ലൈൻ ആയിട്ടുതന്നെ നമ്മൾ സ്മാര്ട്ട് ഫോൺ പയോഗിച്ച് ബുക്ക് ചെയ്യാന് പറ്റും അപ്പോൾ ബുക്ക് ചെയ്യുമ്പം തന്നെ നമുക്കറിയാം ഏ ടിക്കറ്റിന് എത്രയാവും അത് ഗൂഗിള് പേ ചെയ്തു കൊടുത്താൽ മതി ടിക്കറ്റിന്റെ വില ടിക്കറ്റ് എടുത്ത സ്ഥലം ഏത് സീറ്റ് ആണ് സീറ്റിന്റെ നമ്പർ എത്രയാണ് ഇപ്പോൾ ട്രെയിനിന് പോയുവാണെങ്കില് നമുക്ക് മുകളിലെ സീറ്റ് ആണോ താഴെയുള്ള സീറ്റ് ആണോ കിട്ടുക അതൊക്കെ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാന് കഴിയും എന് ഇപ്പോൾ നമ്മൾ യാത്ര പോവുവാണെങ്കിൽ നമുക്ക് യാത്രയിൽ രണ്ട് ദിവസത്തെ യാത്രയൊക്കെ ആണെങ്കില് നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വന്നാല് എവിടെയെങ്കിലും നിൽക്കേണ്ടി വന്നു നിൽക്കേണ്ട സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫോൺ എടുത്ത് നമുക്ക് സെര്ച്ച് ചെയ്യാം ഏ ഈ സ്ഥലത്ത് ഏതൊക്കെ ഏതാണ് നല്ല ഹോട്ടൽ ഉള്ളത് സ്റ്റേ ചെയ്യാന് പറ്റിയ ഹോട്ടൽ ഏതാണ് ഉള്ളത് അപ്പം തന്നെ നമ്മൾ സ്മാര്ട്ട് ഫോൺ ഉപയോഗിച്ച് അത് ചെയ്യുവാണ് മറ്റേത് നമ്മൾ എന്താണ് ആദ്യ കാലങ്ങളൊക്കെ എന്താണ് കാട്ടുക അവിടെ ഇറങ്ങിയിട്ട് ഇന് ആരോടെങ്കിലും അന്വേഷിക്കും ഇവിടെ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ മുറികൾ കിട്ടാൻ ഉണ്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ നാളെയും കൂടി ഇവിടെ ഓർ യാത്ര ഉണ്ട് ഇവിടെ ഒരു സ്ഥലം വരെയും പോവണം അതുംകൂടി കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് മടങ്ങാന് പറ്റൂ അപ്പം അതിന് നല്ലത് പറ്റിയ റൂമുകൾ എവിടെ കിട്ടുക അങ്ങനെ ഒക്കെ ചോദിച്ച് ഓരോരുത്തരോടും ചോദിച്ച് ചോദിച്ച് നടക്കണം പക്ഷേ നമുക്ക് സ്മാര്ട്ട് ഫോൺ കയ്യിൽ ഉണ്ടായതോട് കൂടി ആ ആ ഏരിയയിലെ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണെന്ന് ആ അവിടെ വരുവാണ് നമുക്ക് സ്മാര്ട്ട് ഫോണിൽ കാണുവാണ് അപ്പം നമ്മളും ആ ഹോട്ടൽ ബുക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പോവും അപ്പോൾ റൂട്ട് ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറി റൂട്ട് കറക്റ്റ് ആവണമെങ്കിൽ നേരെ നമ്മൾ മാപ്പ് ഓൺ ആക്കി വെച്ചാൽ നമ്മൾ ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തും അല്ലാതെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു വഴിക്ക് പോകുവാണെങ്കിൽ ഇപ്പോൾ ഒരാളോട് ചോദിക്കും ഈ സ്ഥലം എവിടെയാണ് ഏ എങ്ങനെയാണ് ഏ എത്ര കിലോമീറ്റർ ഉണ്ട് എവിടെ എവിടെ എത്ര സമയം പിടിക്കും അതൊക്കെ നമ്മൾ ഒരാളോട് ചോദിക്കുവാണ് നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ സ്മാര്ട്ട് ഫോണിൽ നോക്കുവാണെങ്കില് മാപ്പ് ഓൺ ആക്കിയാൽ ഇത്ര കിലോമീറ്റർ ഇത്ര സമയം ഇന്ന സ്ഥലത്തെക്ക് ഇന്ന നിങ്ങൾ ഈ വഴിയിലൂടെ പോവുക അങ്ങനെ കാണിച്ചുതരും അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോം നമ്പർ യാത്രാസമയം എല്ലാതും ഈട്ടില് യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ ബുക്കിങ്ങും എല്ലാതും അറിയാന് വേണ്ടിയിട്ട് നമുക്ക് ഈ സാങ്കേതികവിദ്യ വളരെ ഉപകാരമാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഗതാഗതത്തിന്റെ കാര്യത്തിൽ നല്ല എളുപ്പമാ എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് ഈ സാങ്കേതികവിദ്യ ആദ്യകാലത്തെ സ്വിച്ച് ഫോൺ ആണെങ്കിൽ നമുക്ക് ഇതൊന്നും ശരിയാവില്ലായിരുന്നു ഈ അന്വേഷണങ്ങളും ഇതും ഒക്കെ നമ്മൾ ഓരോരുത്തരോടായി ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കിയാണ് നമ്മള് പോയിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാങ്കേതികവിദ്യയിലെ മാറ്റം നമുക്ക് ഏറെ ഉപകാരപ്രദമായി വരികയാണ് നമ്മളൊരു യാത്ര പോവുമ്പോൾ നമുക്കിപ്പം നമ്മ ചെറിയ പിള്ളേർ വരെ നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ അവരെയും പിടിച്ചിട്ട് വേണം അന്വേഷണത്തിന് പോവാൻ അവൊ എ ടിക്കറ്റ് ആയാലും പിന്നെ ബസ് ആയാലും ഇങ്ങനെ റൂമുകളായാലും ഒക്കെ നോക്കണമെങ്കിൽ നമ്മൾ ഈ കൊച്ചിനേയും പിടിച്ച് പോവുമ്പോൾ നമുക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ സാങ്കേതികവിദ്യ മാറ്റം കൊണ്ട് നമുക്ക് ആ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഇന്ന സ്ഥലത്തെക്ക് പോകാൻ ഇന്നത് എന്ന് പറഞ്ഞ് അവിടെ മാപ്പ് നോക്കിയാല് നമുക്ക് ഗതാഗതം വളരെ എളുപ്പമായി സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഗതാഗത്തിന്റെ കാര്യത്തില് പ്രത്യേകിച്ച് നമുക്ക് അവിടെ നമ്മുടെ രാജ്യത്തായാലും ജില്ലയിലായാലും സംസ്ഥാനങ്ങളിലായാലും എവിടെ എത്തണമെങ്കിലും ഈ ഗതാഗതം നമുക്ക് വളരെ ഉപകാരപ്രദമായത് ഈ സാങ്കേതികവിദ്യ ഏറ്റവും ഉപകാരപ്രദമായിട്ടുണ്ട്